നീന്തൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് എൻ്റെ ഭാഗത്തുനിന്നും കൊടുക്കാവുന്ന നിർദ്ദേശം എന്താണെന്നു വെച്ചാൽ ആൾ നീന്താനുള്ള സ്ഥലം ആദ്യം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുക അതില്ലെങ്കിൽ അത് സുരക്ഷിതമാക്കാനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കിയിട്ട് നല്ല നീന്തലറിയാവുന്ന ഒരാളുടെ ശിഷ്യത്യം സ്വീകരിക്കുക അതിനു ശേഷമേ നീന്തലിനെ പറ്റി ചിന്തിക്കാനേയുള്ളു നീന്തൽ തുടങ്ങിയാൽ അത് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ അത് നമുക്ക് എപ്പോഴും സേഫ് ആയിരിക്കണമെങ്കിൽ അതിനൊരു വിദഗ്ദ്ധൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അവരുടെ ശിക്ഷണത്തിലാണ് നീന്തൽ പഠിക്കാവു കാരണം വെള്ളത്തിൽ കളിയായതുകൊണ്ടത് നമുക്ക് അത്ര സുരക്ഷിതമല്ല ഒരു ഒരിക്കലും കരയിൽ കൂടെ ചെയ്യുന്ന ഒരു പരിപാടി പോലെ അല്ലാലോ വെള്ളത്തിലെ പരിപാടി അപ്പം അത് വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യമാണ് എന്ന് അത് ആദ്യമേ പഠിക്കാൻ തുടങ്ങുമ്പോൾ വലിയ ആഴമുള്ള ഭാഗത്ത് അല്ലാതെ വളരെ കുറച്ച് ജലാശയത്തിൽ വേണം നീന്തൽ തുടങ്ങാൻ എങ്കിലേ നമ്മൾക്ക് അപകടമൊന്നും സംഭവിക്കാതെ പഠിക്കാൻ പറ്റുകയുള്ളൂ എപ്പോഴും ഒരു വിദഗ്ധൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുന്നതാണ് നീന്തൽ പഠിക്കുന്നതിന് ഏറ്റവും അനിവാര്യമായ ആവശ്യം നീന്തൽ കൊണ്ട് ഒത്തിരി ഗുണങ്ങൾ ഉണ്ട് അപ്രതീക്ഷിതമായ ഒരു ജലാശയത്തിൽ പെട്ടുപോയാൽ ആരും സഹായത്തിന് ഇല്ലെങ്കിൽ രക്ഷപെടാൻ നീന്തൽ അറിയാമെങ്കിൽ അതൊരു പ്രയോജനമാണ് അപ്പം ഏറ്റവും നല്ലത് നല്ല രീതിയിൽ നീന്തൽ പഠിക്കണം പഠിച്ചെങ്കിലേ ആ പ്രയോജനം കിട്ടുകയുള്ളു ഇന്നിപ്പം സർവ്വ സമയവും ജലാശയത്തിൻ്റെ നടുവിലാണ് നമ്മൾ ജീവിക്കേണ്ടത് ഒരു ഫ്ളഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഭൂമി മുഴുവൻ നിലയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നുള്ളത് ഏതു നിമിഷവും നമ്മൾ വെള്ളത്തിൽ പെട്ടുപോകാം കാരണമുണ്ട് നീന്തൽ പഠിച്ചിരിക്കുന്നവർ നല്ല കാര്യമാണ് അത് വളരെ പഠിക്കുന്നത് നല്ല വിദഗ്ധരുടെ കീഴിൽ സൂക്ഷ്മതയോടുകൂടി പഠിച്ചെങ്കിലേ അതു നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് അത് പ്രയോജനമാകാനും സാധിക്കും ആരെങ്കിലും ജലാശയത്തിൾ പെട്ടുപോയാൽ അതു നമ്മൾക്ക് ഒരു നീന്തൽ അറിയാമെങ്കിലെ ആ ആളിനെ പെട്ടന്നു ചാടി രക്ഷപെടുത്താനായിട്ട് സാധിക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മൾക്ക് അറിയത്തില്ലെങ്കിൽ ഒരാളുടെ സ്ഥാനത്ത് രണ്ടു പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നെ ഒരു പദ്ധതിയായിട്ട് മാറുകയുള്ളൂ പിന്നെ അറിവില്ലാത്ത നീന്തൽ പരിശീലനവും മറ്റും കൊണ്ട് അതുകൊണ്ട് നമ്മൾ നീന്തൽ പഠിക്കുന്നത് ഒരർത്ഥത്തിൽ നല്ലത് തന്നെയാണ് ഇനിയുള്ള ജീവിതത്തിൽ അതു പ്രയോജനപ്പെടാനും സാധ്യതയുണ്ട്